ആ ആ ആ

ഇന്നലെ എന്തുന്നാണ് ആഹാരം കഴിച്ചത്

ആ അതിൻ്റെ ആവാം ഛർദ്ദിച്ചിരുന്നോ ആ അതെയോ നല്ലോണം ഛർദിച്ചു അതെയാ വീട്ടിൽ ഓ യാർ എസ് ഉണ്ടോ ഒ ആർ എസ് അതെയോ ഇന്ന് ഒരു പത്ത് മണി മുതല് ആറ് മണി വരെ ഞാൻ ഉള്ളൂ അതിൻ്റെ എടക്ക് വന്നാല് ഞാൻ നോക്കാം ഓ അപ്പോൾ അവിടെ വയറുവേദനേൻ്റെ ഗുളികയോ മറ്റോ ഉണ്ടോ ആ വയറുവേദന മാത്രമേ ഉള്ളൂ അതോ ഛർദ്ദി ഉണ്ടോ നിർത്താതെ ഛർദ്ദിക്കുന്നുണ്ടോ

ആ ഗുളിക ഉണ്ടെങ്കിൽ ഗുളിക തിന്ന് എന്നിട്ട് അഥവാ പാങ്ങില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക ഹോസ്പിറ്റലിലേക്ക് വരിക ഞാൻ പത്ത് മണി മുതൽ ആറ് മണി വരെയാണ് ഉള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് വന്നാൽ ഞാൻ നോക്കാം പിന്നെ ആ ടോക്കൺ എടുക്കണം

ഡോക്ടറെ എടുക്കാൽ ഒരു പത്ത് മണിക്ക് ശേഷമാണ് തുറക്കൽ അപ്പോൾ ആ ഒരു സമയത്ത് വിളിച്ചാൽ മതി ആ ശരി ശരി ലൈറ്റ് ആയ ഫുഡ് കഴിച്ചാൽ മതി കട്ടി ഉള്ളതൊന്നും കഴിക്കണ്ട ലൈറ്റ് ആയ ഫുഡ് കഴിക്കാം ആ ഛർദി പാങ്ങില്ലെങ്കിൽ ഇളനീർ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് ആ ചിലപ്പോൾ